ഞാൻ ബൈബിൾ വായിച്ചതിൽ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം ഏറ്റവും നീതിമാനായി നല്ല മനുഷ്യനായി ജീവിച്ചിട്ടും ജോബിനെ ദൈവം പരീക്ഷിച്ച ആ ഒരു സമയം അത് ജോബിനുണ്ടായ സങ്കടങ്ങളും എല്ലാം ഞാൻ വായിച്ചിട്ട് എനിക്ക് നന്നായിട്ട് കരച്ചിൽ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാരാ അവൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ സ്വത്ത് മുഴുവൻ ആട് മാടുകൾ മുഴുവൻ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കി ദൈവത്തെ തള്ളിപ്പറയ് എന്നു പറയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഞാനും ആ കൂട്ടത്തിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇവൻ ദൈവത്തെ തള്ളിപ്പറയുന്നില്ലല്ലോ എന്ന് ശരിക്കും ഞാൻ എൻ്റെ ജീവിതമായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരവസ്ഥയിലൂടെയൊക്കെ ഞാനും കടന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് അതു വായിച്ച സമയത്ത് അത് ശരിക്കും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്നെ അതു കൂടുതൽ കരയിപ്പിച്ചത് കാരണം എൻ്റെ ഭർത്താവിനാണെങ്കിലും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയും നിന്ന നിൽപ്പിൽ ഒരു ഗൾഫിൽ ജോലിയുണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് ലീവിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചുപോവാൻ സമയമായപ്പോൾ തിരിച്ചു വരണ്ട നിങ്ങളുടെ വിസ ക്യാൻസലാക്കുകയാണ് എന്നു പറഞ്ഞിട്ട് പകരം അവിടെ വേറെ ആളെ എൻ്റെ ഹസ് ഭർത്താവിനു പകരം വേറെ ആളെ അവിടെ ജോലിക്കെടുക്കുകയൊക്കെ ചെയ്തസമയത്ത് ഞാൻ ശരിക്കും ജോബിനെയാണ് ഓർത്തുപോയത് അപ്പോൾ ആ പുസ്തകം വായിച്ച ആ ഒരു സമയമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പം കൂടുതൽ എന്നെ അതു കരയിപ്പിക്കാനുണ്ടായ സംഭവം എൻ്റെ ജീവിതം ആയിട്ട് ബന്ധം ഉണ്ടായതാണോ എന്ന് ഇപ്പോഴും ഞാൻ അത് ആ ഒരു സാഹചര്യത്തിൽത്തന്നെ കടന്നു സാഹചര്യത്തിൽകൂടിത്തന്നെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടും ഒരു പുതിയ ജോലി ഇന്നു വരെയും ശരിയാകാനായിട്ടും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ആ ജോബിൻ്റെ പുസ്തകം ആയിട്ട് ഞാൻ ബന്ധപ്പെടുത്തിത്തന്നെ എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് കരച്ചിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് കൂട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളിപ്പറയുവെന്ന് പറഞ്ഞ സമയങ്ങളിലും അവൻ ദൈവത്തിൽ ഉറച്ച് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്നു ജോബ് ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നേ എൻ്റെ ഉള്ളിൽ ജീവൻ മാത്രം അവശേഷിപ്പിച്ച അവസ്ഥവരെ വന്നു കഴിഞ്ഞാലും ഞാൻ ദൈവത്തോട് ഒട്ടിത്തന്നെ നിക്കും എൻ്റെ ദൈവം എന്നെ കരുതുന്നവനാണ് എന്നുള്ള ഒരു തോന്നലിൽ ജോബ് ജീവിച്ച ആ ഒരവസ്ഥയിലൂടെ ഞാനും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ ഞാൻ കരുതുന്നത് ആ അവസാനസമയം അവൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം തിരിച്ചുകൊടുത്തപ്പോഴും അവനുണ്ടായ ആ സന്തോഷം അതും ഞാൻ കണ്ണു നിറഞ്ഞ് അത് എനിക്കത് വായിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അവൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും നഷ്ടപ്പെടുന്ന ആ അതിൻ്റെ എല്ലാം നാലിരട്ടി ആയിട്ട് തിരിച്ചുകൊടുത്തു എന്നു പറയുമ്പോൾ നമ്മളത് കണ്ണു നിറഞ്ഞ് തന്നെ അതു കേൾക്കാൻ പറ്റത്തുള്ളു ദൈവത്തിൻ്റെ ആ കരുണ അനുഗ്രഹം ഞാൻ ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കിയിട്ട് എൻ്റെ കണ്ണു നിറഞ്ഞ് പോവുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോബിൻ്റെ പുസ്തകം എൻ്റെ ജീവിതവും ആയിട്ട് ബന്ധപ്പെടുത്തിത്തന്നെ ഞാനും വിശ്വസിക്കുകയാണ് എനിക്കും ഇതെല്ലാം ദൈവം തിരിച്ചുതരും എന്ന് കണ്ണുനീരോടെ ഞാൻ ഓർക്കുന്നു നല്ല ജോബിന് നല്ല മക്കളായിരുന്നു നല്ല മക്കൾ ഭാര്യ അവരെ ഒക്കെ പെട്ടന്ന് തന്നെ അവരെയൊക്കെ മരണത്തിന് ഇടയാക്കിയ അവരെയൊക്ക തിരിച്ചു ദൈവം വിളിച്ചപ്പോൾ ജോബ് അനുഭവിച്ച ആ ഒരു വേദന എല്ലാം തളർന്ന് ചാക്കുടുത്ത് അവൻ ചാരത്തിലിരുന്നു എന്നു പറയുമ്പോൾ ആ ഒരവസ്ഥ ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണു നിറയാറുണ്ട് മനസ്സിലൊരു വേദന എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ആ ജോബിൻ്റെ പുസ്തകത്തിലൂടെ എനിക്ക് വിഷമം തോന്നാറുണ്ട് കൂട്ടുകാരൊക്കെ കളിയാക്കി പറയുന്നത് കേൾക്കുമ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് എന്നിട്ടും അവൻ ആ സമയത്തും എല്ലാവരും അവനോട് ഭാര്യ പോയില്ലേ ഇനിയെങ്കിലും നിനക്ക് നിങ്ങളുടെ ദൈവത്തെ ഒന്ന് ഉപേക്ഷിച്ചുകൂടെ എന്ന് തള്ളിപ്പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുന്ന സമയത്തും ഇല്ല ഞാനെൻ്റെ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ആ ജോബിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലനുഭവപ്പെടാറുണ്ട് അത്രമാത്രം ദൈവത്തെ ദൈവത്തോട് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളെയൊരു മനുഷ്യനാണല്ലോ ഈ ജോബെന്ന് തോന്നുമ്പോൾ നമുക്ക് എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്നെ കരയിപ്പിച്ച ബൈബിളിലെ ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ജോബിൻ്റെ പുസ്തകം